ഹലോ മേഡം എനിക്ക് ഒര് ആനുവൽ ഡേയിൻ്റെ ഫങ്ക്ഷനായിട്ട് ഒര് ഡ്രസ്സ് ഒര് യൂണിഫോം തയ്ക്കാനുണ്ടായിരുന്നേ ഷർട്ടും പാൻറ്റുമാണ്

യൂണിഫോമാണേ യൂണിഫോം അപ്പൊൾ അതിൻറ്റേതായ രീതിയില് അടിക്കാനുണ്ട് അളവിന് ഞാനിവിടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു മാഡം എവിടെയാണ് ഉള്ളേ ആ ഓക്കെ ഓക്കെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇവര് കറക്റ്റ് അളവിൽ തന്നെ ഇത് ചെയ്താരുന്നു അപ്പൊൾ നമ്മള് അളവ് എടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്ററ് എന്നാൽ എനിക്ക് തോന്നുന്നത് നാളെ ഫ്രീ ആണ് പക്ഷേ എനിക്ക് വൺ വീക്കിനുള്ളിലിത് കറക്റ്റ് ഒരാഴ്ച്ചയേ ഉള്ളൂ ഇനി ആനുവൽ ഡേ ഫങ്ങ്ഷന് ഇനി കറക്റ്റ് വൺ വീക്ക് നെക്സ്റ്റ് മൺഡേയാണ് പത്ത് മണിക്കോ ആ ഓക്കെ തിരക്കെന്തെങ്കിലും ഉണ്ടോ അപ്പൊൾ തിരക്കുണ്ടോ ഈ സമയത്ത് ഞായറാഴ്ച്ച ഈവനിംഗ് ഓക്കെ അപ്പഴത്തേക്കും ചെയ്തു വെയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ ഇല്ല എനിക്ക് രണ്ട് ഇതായിട്ടാണ് രണ്ട് ജോഡിയുണ്ട്

ഇല്ല ഒന്നായാലും മതി അത് രണ്ട് ദിവസത്തിനുള്ളിൽ പെട്ടന്ന് തന്നെ ചെയ്ത് തരാൻ പറ്റില്ലെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്കും ആ ഓക്കെ കട എത്ര മണിക്കായിരിക്കും തുറക്കുന്നത് ആ ഓക്കെ ഓക്കെ വൈകുന്നേരം എത്ര മണിവരെയുണ്ടാകും അപ്പൊൾ ഷോപ്പ് അഞ്ച് മണി വരെയല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ വേറെന്തായാലും മേഡം ഓഫീസിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ